പൊതുവെ നമ്മടെ നാട്ടിൽ വിവാഹങ്ങളിൽ ആളുകൾ വധുവിനും വധുവിന് വീട്ടിൽ വന്ന് തലേദിവസമായും അതുപോലെത്തന്നെ വിവാഹത്തിന്റെയന്ന് അന്നും ഒക്കെ ഒരുപാട് സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു ചടങ്ങ് നമുക്കിപ്പോഴും കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ വധുവിന് വേണ്ട സമ്മാനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉദാഹരണത്തിന് സാരി അതുപോലെത്തന്നെ ചുരിദാർ സെറ്റ് അതുപോലെ പുതിയൊരു കുടുംബിനി എന്ന നിലയ്ക്ക് വീട്ടിലാവശ്യമായ കുക്കറ് അതുപോലെത്തന്നെ ഇസ്തിരിപ്പെട്ടി പിന്നെ പൈസ അങ്ങനെ ഒട്ടനേകം സാധനങ്ങൾ വധുവിന് സമ്മാനമായിട്ട് കൂട്ടുകാരും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും അതുപോലെത്തന്നെ ബന്ധുക്കളൊക്കെ കൈമാറി വരുന്നൊരു ചടങ്ങുണ്ട് ഇപ്പോഴും കേരളത്തിലെ ചില ജില്ലകളിൽ സ്ത്രീധനം കൊടുക്കുന്ന ചടങ്ങ് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീധനപീഡനം എന്നുള്ള രീതിയിൽ ഒരുപാട് കേസുകളൊക്കെ വാർത്തകളിലും മാധ്യമങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പേരിൽ ഒരുപാട് അടിയും വഴക്കും ഒക്കെ കുടുംബങ്ങളിൽ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഭാഗമായിട്ട് വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തുന്ന പല വധൂവരന്മാരുമുണ്ട് സ്ത്രീധനം തരാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വിവാഹങ്ങൾ വിവാഹസമയത്ത് ആളുകൾ നൽകുന്ന സമ്മാനങ്ങൾ പോലെ നമ്മുടെ വിവാഹസമയത്തും നമ്മൾ ചിലപ്പോഴൊക്കെ ആ സമ്മാനങ്ങൾ വധുവിന് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ തിരിച്ച് കൊടുക്കേണ്ട സാഹചര്യവുമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ സമ്മാനത്തിൻ്റെ പുറത്ത് ഇങ്ങനെ സമ്മാനപ്പൊതി കൊണ്ടൊക്കെ വർണ്ണ പല തരം വർണ്ണത്തിലുള്ള പേപ്പറ് കടലാസ്സുകൊണ്ടൊക്കെ പൊതിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ അവരുടെ പേരും വിലാസവുമൊക്കെ ഇങ്ങനെ എഴുതിവെക്കും അപ്പോൾ അത് കാണുമ്പോൾ പിന്നീട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്തങ്കിലും വിവാഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകളോ ഉണ്ടാകുമ്പോൾ അവരും നമുക്ക് തിരിച്ച് സമ്മാനങ്ങൾ നൽകുക എന്നുള്ളൊരു ആചാരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിലുമൊക്കെ നടന്നുപോകുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ ജില്ലയിൽ ഞങ്ങളുടെ ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പൈസയൊക്കെയായിട്ട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ അവർക്ക് അതുപയോഗിക്കാനായിട്ട് പറ്റും പുതിയ നവ വധുക്കൾക്ക് അല്ലെങ്കിൽ നവ വധൂവരന്മാർക്ക് പിന്നെയതുപോലെത്തന്നെ അവരുടെ ഫോട്ടോ ഫ്രെയിമുകളൊക്കെ ഇപ്പോൾ ഇക്കാലത്ത് സമ്മാനങ്ങളായിട്ട് കൂട്ടുകാരൊക്കെ കൊടുക്കുന്നതൊക്ക നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ വിവാഹങ്ങൾ ആളുകൾ വധുവിന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വധുവിന് മാത്രമല്ല വരനും ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കുന്നവരും ഇത് നമ്മുടെ നാട്ടിൽ ഒക്കെയുണ്ട്